ഇപ്പോഴത്തെ കുട്ടികൾ നല്ല കോഴ്സുകൾ പുറത്തു പോയി അത് വേറെ രാജ്യങ്ങളിൽ പോയി പഠിക്കാനാണ് കൂടുതൽ പേർക്കും താത്പര്യം പിന്നെ മെഡിസിൻ പോലെയുള്ളതിനൊക്കെ നമുക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ഉള്ള പ്രയാസവും പിന്നെ പ്രൈവറ്റ് ആയിട്ട് പോകാൻ ആയിട്ട് ഫീസ് കൂടുതൽ അപ്പം പുറത്തുള്ള സ്ഥലങ്ങളിൽ പോയാൽ അത്രയും ഫീസ് കൊടുക്കേണ്ടി വരില്ല എന്നതൊക്കെ കൊണ്ട് കുറേ ഒരുപാട് പേർ പുറത്തു പോകാനാണ് കുടുതൽ താത്പര്യപ്പെടുന്നത് പിന്നെ ഇപ്പം കൂടുതൽ പേരും എന്ത് പഠിച്ചാലും അത് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടണം അപ്പോൾ അതായത് പഠിച്ചു കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കാനാർക്കും തന്നെ താത്പര്യം ഇല്ല എന്ത് കോഴ്സ് ആയാലും അത് ജോബ് ഓറിയൻ്റഡ് ആണോ എന്നാണ് അവർ ആദ്യം നോക്കുന്നത് അതായത് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയാൽ ഉടനെ തന്നെ അവർക്ക് ഒരു ജോലി ലഭിക്കും എന്ന് ഉറപ്പുള്ള കോഴ്സുകളാണ് ഇപ്പം ഉള്ള കുട്ടികളും മാക്സിമം തെരഞ്ഞെടുക്കുന്നത് അതായ അതാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു പഠിച്ചിട്ട് വെറുതെ ഇരിക്കുന്നതിനേക്കാളും നമുക്ക് പഠിച്ച് കഴിഞ്ഞാൽ ഒരു ജോലി ഉറപ്പുള്ള കോഴ്സ് പഠിക്കാനാണ് കൂടുതൽ പേർക്കും താത്പര്യം അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഫോറിൻ കൺട്രീസിലോട്ട് പോകാനാണ് ഇഷ്ടം കാരണം അവിടെ ഒരു കോഴ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് അവിടെ പഠിക്കുന്നതോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോബും ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഉള്ളൊരു അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിലോ അങ്ങനെ ഒരു സൗകര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇപ്പോൾ പുറത്ത് കൂടുതൽ പേരും പോകുന്ന അവർ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കുന്നതോട് ഒപ്പം തന്നെ നമുക്ക് പാർട്ട് ടൈം ജോബും ചെയ്യാം അതായത് നമുക്ക് ജീവിക്കാനുള്ള പൈസയും ഉണ്ടാക്കാം നമുക്ക് പഠിക്കുകയും ചെയ്യാം അതാണ് കൂടുതൽ പേരും പുറത്തു പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നത് ഇപ്പം എല്ലാവരും നോക്കുന്നത് ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ ജോലി റെഡി ആവണം ആ രീതിയിലുള്ള കോഴ്സുകളാണ് ഇപ്പം കുട്ടികൾ എല്ലാം നോക്കുന്നത്